ഹെഡ്സെറ്റ് ചെവിയിൽ വയ്ക്കുമ്പം ഭയകര ചൂടാവുന്നു ഒരു കരകരപ്പുപോലെ തോന്നുക അതുകൊണ്ടു ഇത് വയ്ക്കുമ്പം എനിക്ക് തലയ്ക്കൊക്കെ ഒരു ചൂടുപോലെയാണ് അപ്പോൾ ഈ പിന്നെ പ്രോഡക്ട് ഉപയോഗപ്രദമായി തോന്നുന്നില്ല കാരണം ഇത് പിന്നെ എന്താ പറയുക ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ പ്രോഡക്ട് മാറ്റി നല്ലൊരു പ്രോഡക്ട് തരാൻ തരണമെന്ന് അപേക്ഷിക്കുന്നു